ഈ ഇപ്പം കുഴപ്പമില്ല ഇപ്പം എന്താ പറയുക ഇപ്പം എല്ലാവർക്കും പൈപ്പ് വെള്ളമുണ്ട് പിന്നെ അതേപോലെ തന്നെ പൈപ്പ് വെള്ളം എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട് അതേപോലെത്തന്നെ നമുക്ക് പിന്നെ കുഴൽ കിണറുണ്ട് കിണറുണ്ട് മോട്ടറ് വെച്ച് നമുക്കെങ്ങനെ ആയാലും വെള്ളത്തിനൊരു ക്ഷാമവുമില്ല ടാങ്കുകള് വെച്ച് വെള്ളമടിച്ച് കേറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം തീരുന്നത് ഓരോ ദിവസം നമുക്കടിച്ചാലും വെള്ളം അങ്ങനെത്തന്നെ നിൽക്കും പക്ഷെ പണ്ട് കാലഘട്ടത്തില് അങ്ങനെയൊന്നും അല്ലായിരുന്നു നല്ലപോലെ ജലക്ഷാമം അനുഭവപ്പെട്ടിട്ടുണ്ട് അതായത് ഏപ്രിൽ മെയ് മഴ തുടങ്ങുന്ന കുറച്ച് കാലം വരെ നമ്മള് വെള്ളാമുണ്ടാവില്ല നമ്മുടെ കിണറ്റിലെ നമ്മുടെ അടുത്തുള്ളിടത്ത് നിന്ന് നമ്മള് വേറെ കിണറ്റുകളിലോ അല്ലെങ്കിൽ ഈ ഓവ്ചാൽ ഓവ്ചാലിന്നല്ല ഈ വെള്ളം ഇങ്ങനെ നി ഇതാക്കുന്ന നല്ല നീർചാലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടന്ന് വെള്ളം ചുമന്ന് പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ടാങ്ക് നിറച്ച് അല്ലേ ഈ സിമെൻറ്റിൻ്റെ ഭരണികളൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് അതൊക്കെ നിറച്ച് വെക്കും ഒത്തിരി ദൂരം നടന്ന് ഞങ്ങള് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് കുടുംബക്കാര് പിന്നെ പറ്റാവുന്നവരൊക്കെ ഒരുമിച്ച് പോവും പിന്നെ എന്താ കുടവൊക്കെ എടുത്തിട്ട് കുടം ബക്കറ്റ് അപ്പം നമ്മൾക്ക് കുടമാണ് കൂടുതലും എളിയില് വെച്ച് നമുക്ക് കൊണ്ട് വരാം അപ്പം അങ്ങനെയൊക്കെ കൊണ്ട് വന്ന് ജീവിതം നമുക്ക് അത് ഇന്ന് ഇപ്പത്തെ കാലത്ത് കാണാനില്ല അതൊക്കെയൊരു എന്താ പറയുക കഴിഞ്ഞ് പോയ ഓർമയാണ് നമുക്ക് തിരിച്ച് കിട്ടാത്ത നല്ല ഓർമ്മ അന്ന് ബുദ്ധിമുട്ടാണെങ്കിലും ഇന്നോർക്കുമ്പം ഇന്നാരും അങ്ങനെ ചെയ്യുന്നില്ല നമുക്കോർത്തിരിക്കാൻ എന്നും ഒരു മെമ്മറിയായിരിക്കും അത് കാരണം ഇപ്പത്തെ കാലത്ത് അങ്ങനെ ആരേലും ചെയ്യുന്നുണ്ടോന്നെനിക്കറിയില്ല ഞങ്ങളൊത്തിരി ദൂരം വെള്ളത്തിന് പോകുമായിരുന്നു എല്ലാവരും കൂടൊരുമിച്ച് എന്നിട്ട് കൊണ്ട് വരും എന്നിട്ട് വൈകുന്നേരമാകുമ്പത്തേക്കും നമ്മള് നിറച്ച് വയ്ക്കുമായിരുന്നു അമ്മയൊക്കെ അന്ന് കൂലിപ്പണിക്കൊക്കെ പോവുന്ന കാലത്ത് നമ്മള് ഇങ്ങനെ നമ്മള് വീട്ടിലിരിക്കുന്ന ദിവസങ്ങളൊക്ക നിറയ്ക്കുമായിരുന്നു നിറച്ച് വയ്ക്കുമായിരുന്നു എല്ലാവരും ഒരുമിച്ച് പോയി എന്നിട്ട് വീട്ടിലെ കുടങ്ങളൊക്കെ നിറച്ച് വെക്കും കാരണം അങ്ങനെയായിരുന്നു ആ കാലഘട്ടം